ആ എനിക്ക് ഒരു കിലൊ കൊഞ്ചും ഒരു കിലൊ ഞണ്ടും വേണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച നത്തോലി അത്ര പോരായിരുന്നു കേട്ടോ നിങ്ങൾ കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് എൻറ്റേന്ന് വാങ്ങിച്ചത് അത്രയും വിലക്ക് വാങ്ങിച്ചിട്ട് മീന് തീരെ മോശമായിരുന്നു അയ്യോ അത് വളരെ കൂടുതലാണല്ലോ കൊഞ്ചിനും ഞണ്ടിനും എഴുന്നൂറ്റ

ഞാൻ നിങ്ങളുടേയിൽനിന്ന് സ്ഥിരം ഞാൻ നിങ്ങളുടേയിൽനിന്ന് സ്ഥിരം വാങ്ങിക്കുന്ന ആളല്ലേ എന്തെങ്കിലും ഒന്ന് കുറച്ച് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കിലോയി ആ അഞ്ഞൂറൊക്കെ അ ഞാൻ എനിക്ക് എങ്കിലെ നിങ്ങൾ ഈ മീൻ ക്ലീൻ ചെയ്ത് തരാൻ പറ്റുമോ എനിക്ക് വീട്ടിൽ ക്ലീൻ ചെയ്താൽ കളയാനുള്ള ബുദ്ധിമുട്ടുണ്ട്

രണ്ട് കിലൊ ഞാൻ വാങ്ങാം നിങ്ങൾ അവസാനത്തെ വില എത്രയാണെന്ന് പറയൂ അപ്പോൾ കൊഞ്ചിന് അറുന്നൂറാണോ ഒരു കിലൊ ക്രാബിന് ഈ എഴ്ന്നൂറ്റമ്പത് എഴുന്നൂറാക്കാൻ പറ്റുമോ രണ്ട് കിലൊ വാങ്ങിച്ച ആ എങ്കിൽ രണ്ട് കിലൊ കൊഞ്ചും രണ്ട് കിലൊ ഞണ്ടും എനിക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം നന്നാക്കി വെച്ചിരിക്കണം വൈകുന്നേരത്തിനകത്ത് ഞാൻ ആളെ വിട്ട് വന്ന് വാങ്ങിപ്പിച്ചോളാം നല്ലത് തന്നെ തരണം എനിക്ക് മോശമാണെങ്കിൽ ഞാൻ തിരിച്ച് കൊണ്ട് വന്ന് തരും കേട്ടല്ലോ ആ ശരി വൈന്നേരത്തേലെയ്ക്ക വേറെ മീനൊന്നും വേണ്ട സാൽമൺ കിട്ടില്ലല്ലോ സാൽമൺ നമുക്കവിടെ വരാറില്ലല്ലോ ആ അപ്പം

ആ ശരി ഓക്കെ ശരി ശരി അപ്പം ഞാൻ വൈകുന്നേരം ആളെ വിടാം സാധനം എടുക്കാൻ വേണ്ടി ആളെ വിടാം